വയനാട്ടില് നമ്മള് നോക്കുകയാണെങ്കില് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണു നമ്മുടെ ഗവൺമെന്റ് എഞ്ചിനീയറിങ് കോളേജ് അതേപോലെ എൻ എസ് എം പുഴമുടിയിലെ ഗവൺമെൻറ് കോളേജ് അതേപോലെ ഡബ്ല്യു എമ്മോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മേരിമാത ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതേപോലെ അല്ഫോൺസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഇങ്ങനെ ഒരുപാട് കോളേജും ഇൻസ്റ്റ്യൂട്ടും പോളിടെക്നിക് കോളേജൊക്കെ നമ്മുടെ വയനാട് ഡിസ്ട്രിക്റ്റിലുണ്ട് അപ്പോള് അവിടെ ഏറ്റവും കൂടുതല് ചൂസ് ചെയ്യുന്ന ആൾക്കാര് സ്റ്റുഡൻറ്സ് ചൂസ് എൻജിനീയറിങ് പ്രധാന വിഷയായിട്ട് അവര് ചൂസെയ്യാറുണ്ട് എൻജിനീയറിംഗ് അതായത് ഗവൺമെൻറ് കോളേജ് നമ്മുടെ മാനന്തവാടിയാണ് പ്രധാനമായിട്ടുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത് അതേപോലെ കൽപറ്റയുണ്ട് ഗവൺമെൻറ് കോളേജുണ്ട് കൽപറ്റ അതുപോലെ തന്നെയാണ് നമ്മുടെ സുൽത്താന് ബത്തേരിയുള്ള സെന്റ് മേരീസ് കോളേജ് ഇതൊക്കെ ഫേമസായിട്ടുള്ള കോളേജസാണ് അതേപോലെ ഡി എം വി എസ് മെഡിക്കൽ കോളേജ് ഉണ്ട് നമ്മുടെ പുൽപ്പള്ളിയില് ഒന്നുണ്ട് നമ്മുടെ കല്ലുവയലില് ജയശ്രീ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇതൊക്കെ നല്ല എന്താണെന്നാണു പറയുക എല്ലാവരും ചൂസെയ്യുന്ന അത്യാവശ്യം ഫേമസായിട്ടുള്ള പോപ്പുലറായിട്ടുള്ള കോളേജസും ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ് അതുപോലെ പോളിടെക്നിക്ക് ഉണ്ട് നമ്മുടെ ഗവൺമെൻറ് പോളിടെക്നിക്ക് കോളേജ് മാനന്തവാടിയില് ഏ അതേപോലെ കൽപ്പറ്റയില് ഒന്നുണ്ട് കെ എം എം ഗവൺമെൻറ് ഐ ടി ഐ പിന്നെ അതുപോലെ ദ്വാരക സർക്കാർ പോളിടെക്നിക് ഇതൊക്കെ നല്ല പോപ്പുലറായിട്ടുള്ളാണ്